കോഴി ഇറച്ചി ഉൽപ്പന്നങ്ങള് കോഴി ഇറച്ചി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോഴി ഇറച്ചികൾ കൊന്ന് അതിനെ അതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വൃത്തിയാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം അത് നല്ല ഒരു മെത്തേഡ് ആണ് അത് മുഴുവനായോ കഷ്ണങ്ങളായോ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് പിന്നെ വേറൊരെണ്ണമെന്ന് പറഞ്ഞാല് നമ്മള് മസാലകളൊക്കെ പുരട്ടി അതായത് മുളകും മഞ്ഞളും നല്ലപോലെ പുരട്ടി ഒരു രാവിലെ മുതല് വൈകിട്ട് വരെയൊക്കെയാ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ് വച്ചിട്ട് നമുക്ക് അത് മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പം നമുക്ക് അതിനെ കുക്ക് ചെയ്യാവുന്നതാണ് അതല്ലാതെ ലോങ് പ്രൊസീജറാണെങ്കില് അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഫ്രിഡ്ജിൽ വെയ്ക്കുകയാണ് ഉത്തമ മാർഗം അതല്ലാതെ പിന്നെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി നല്ല പിന്നെ സൺ ലൈട്ടിലിട്ട് ഉണങ്ങി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അതല്ലാതെ പിന്നെ നമ്മൾക്കിതിനെ വറത്ത് അതായത് എണ്ണയിൽ നല്ല ഡീപ് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് വെക്കാവുന്നതാണ് പിന്ന അച്ചാറുകളാക്കി നമുക്ക് വിനാഗിരി ഒക്കെ ഒഴിച്ച് അച്ചാറുകളാക്കി നമുക്ക് കോഴിയിറച്ചി ഉൽപ്പന്നങ്ങള് ഫ്രീസ് ചെയ്യാവുന്നതാണ് അത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് കയറ്റി വിടാനൊക്കെ ഈ അച്ചാറുകളാക്കി ഉപയോഗിക്കാം വറത്ത് ഡീപ് ഫ്രൈ ചെയ്തിട്ട് വിടാം പിന്നെ സൺ ലൈറ്റിൽ ഉണങ്ങി ഉപയോഗിക്കാം അങ്ങനെയുള്ള ഇതുണ്ട് പക്ഷെ ഇതിനകത്ത് നമ്മൾക്ക് ലോങ്ങ് ടൈമ് ഒരു സാധനം നമ്മള് ഫ്രീസറിൽ വച്ച് കഴിയുമ്പം ലോങ്ങ് ടൈമ് ഫ്രീസറില് വച്ച് കഴിഞ്ഞാല് അതിനകത്ത് അമോണിയ കൂടും അമോണിയായുടെ ഉൽപ്പന്നം ഇത് കൂടിയിട്ട് കണ്ടൻറ്റ് കൂടിയിട്ട് നമുക്ക് പല അസുഖങ്ങള് ഉണ്ടാകാനുള്ള സാധ്യതകള് കൂടണം മാംസാഹാരം നമ്മള് ലോങ്ങ് ടൈമൊന്നും നമുക്ക് ഫ്രീസറിൽ വച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഉപയോഗിച്ച് വച്ച് കഴിഞ്ഞാല് പിന്ന അതിനകത്ത് അമോണിയാടെ അംശങ്ങള് കൂടിയിട്ട് നമുക്ക് അത് വയറിന് ദോഷകരമായ സംഭവങ്ങളുണ്ടാവുകയും എപ്പഴും ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ഇപ്പോൾ വരുന്ന നമ്മുടെ കോഴികള് എന്താ പറയുക ബ്രോയിലർ കോഴികളൊക്കെ നമ്മുടെ ഈ കൊളസ് ഹോർമോൺസൊക്കെ കുത്തി വച്ച് വരുന്നതായത് കൊണ്ട് അതിനെ നമ്മള് അതിനെ ഫ്രീസറിലൊക്കെ വച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളും ഒത്തിരി ഉണ്ടാവാറുണ്ട്